ഇപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയില് ശ്രദ്ധേയമായ ലന്മാർക്കുകളോ ചരിത്രമായ സ്ഥലങ്ങളോ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാടുണ്ട് പിന്നെ ക്ഷേത്രങ്ങളായിത്താണെങ്കിൽ ക്ഷേത്രങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് അതായത് ലോകനാർക്കാവ് ക്ഷേത്രം പിന്നെ വരക്കൽ ശ്രീ ദുർഗ്ഗാദേവി ക്ഷേത്രം പിന്നെ അങ്ങനെയുള്ള ഒരുപാടുള്ള ഇതുണ് നമുക്കിപ്പം പിന്നെ മ്യൂസിയങ്ങൾ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിങ്ങളും ഉണ്ട് നമുക്ക് പിന്നെഎന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രകൃതിപരമായട്ട് ഇപ്പോൾ ജാനകിക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് പിന്നെ റീജണൽ സയൻസ് സെന്റർ ഉണ്ട് പിന്നെ ഇതല്ലാർക്കുമായിട്ട് തുറന്നിട്ടുണ്ടന്ന് ചോദിച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങൾ ഒരിക്കലും എല്ലാവർക്കും വേണ്ടീട്ട് തുറന്നിട്ടുണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ കൂടുതൽ നമുക്ക് നമുക്ക് ജാതിൻറെത് പറയുന്നത് അല്ല പക്ഷേ നമുക്ക് പൊതുവായിട്ടെന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടുണ്ട് കാരണം ആ എല്ലാവർക്കും വേണ്ടീ തുറന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഹിന്ദുക്കളാണല്ലോ കൂടുതൽ ക്ഷേത്രത്തില് പോകുക ഇപ്പോൾ പള്ളിയിലാണെങ്കിലും മുസ്ലിംസാണ് പോവുക അല്ലെങ്കിൽ ക്രിസ്താനികളുടെ പള്ളിൽ ക്രിസ്താനികളാണ് പോവുക അപ്പോൾ ക്ഷേത്രങ്ങളൊന്നും എല്ലാവർക്കും തുറന്നിട്ടില്ലെങ്കിലും ഈ മ്യൂസിയങ്ങൾ അ പിന്നെ കോട്ടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കുമായിട്ട് നമുക്ക് ഇവിടെ തുറന്നിട്ടുണ്ട്